കോഴികൾക്ക് നിരവധി രോഗങ്ങൾ ബാധിച്ചേക്കാം അവയിൽ ചിലതൊക്കെ വളരെ ഗുരുതരവും വളരെ അപകടകരവുമായ രോഗങ്ങളാണ് ഇതിൽ ഒരു ചില രോഗങ്ങൾ രോഗങ്ങളെ കുറിച്ച് ഞാൻ പറയാം അതിൽ ഒന്ന് നൂക്കോസിൻ രോഗം എന്ന രോഗമാണ് ഇത് ശ്വാസകോശവുമായി ബന്ധപ്പെട്ട ഒരു അണുബാധയാണ് ഇത് ഇതിൻ്റെ ലക്ഷണങ്ങളൊക്കെയായി പറയാവുന്നത് വയറിളക്കവും നാഡീവ്യവസ്ഥയെ ബാധിക്കുന്ന ലക്ഷണങ്ങളും എന്നിവയൊക്കെയാണ് ഇത് വാക്സിനേഷൻ ആണ് പ്രതിരോധം എന്ന രീതിയിൽ എടുക്കാൻ പറ്റുന്നത് ഇത് കൂടാതെയുള്ള മറ്റ് രോഗങ്ങളെന്ന് പറയുന്നത് ബ്രോയ്ലർ കോഴിക്ക് വരുന്ന രോഗങ്ങളാണ് ഇത് വയറിളക്കം വിശപ്പില്ലായ്മ തളർച്ച വളർച്ച മുരടൽ എന്നിവയൊക്കെയാണ് ലക്ഷണങ്ങൾ ഇത് വാക്സിനേഷനും കൃത്യമായരീതീ ശുചിത്തം നില നിർത്തിയുമൊമൊക്കെ ഈ രോഗം വരാതെ നോക്കാൻ സാധിക്കാവുന്നതാണ് അടുത്ത രോഗമെന്ന് പറയുന്നത് മാറെക്സ് എന്ന് പറയുന്ന ഒരു രോഗമാണ് ഇതിൽ ഇതിലെ ലക്ഷണങ്ങൾ എന്ന് പറയുന്നത് തളർച്ചയും നാഡീ വ്യവസ്ഥയെ ബാധിക്കുന്ന ലക്ഷണങ്ങളുമെന്ന് ഒക്കെയാണ് ഇതും വാക്സിനേഷൻ വഴിയാണ് നമുക്ക് തുരത്താൻ പറ്റുന്നത് ഇത് കൂടാതെ ഉള്ള മറ്റ് രോഗങ്ങളെന്ന് പറയുന്നത് ഫൗൾ പോക്സ് ഒക്കെയാണ് തൊലിയിലെ വീക്കവും പഴുപ്പുകളും ഒക്കെ വരുന്നതാണ് ഈ രോഗത്തിൻ്റെ ലക്ഷണങ്ങൾ ഇതൊക്കെ ഇങ്ങനത്തെ രോഗങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് തന്നെ ഒരു വെറ്റിനറി ഡോക്ടറിനെ കാണിച്ച അവർ കൃത്യമായ രീതിയിൽ എന്നാൽ ചെയ്യണ്ടെന്ന് വച്ചാൽ പറഞ്ഞു തരും ഇതു കൂടാതെ പക്ഷിപ്പനിയും കോഴികളെ ബാധിക്കുന്ന ഒരു രോഗമാണ് ഇത് ഇത് ഇത് കൂടാതെ മറ്റ് ചെറിയ ചെറിയ രോഗങ്ങളുമുണ്ട് അതൊക്കെ വരുന്ന സമയത്ത് കൃത്യമായ രീതിയിൽ പരിപാലനവും നമ്മടെ ഭാഗത്ത് നിന്ന് ഇടപെടലുമുണ്ടാകുമ്പോൾ ഇത് രോഗങ്ങളൊക്കെ മാറാവുന്നതാണ് പിന്നെ നമ്മൾ കോഴിയെ എപ്പോഴും ആരോഗ്യത്തോടെ സൂക്ഷിക്കുന്നതിനായി എടുക്കേണ്ട മാർഗ്ഗങ്ങളെന്ന് പറയുന്നത് ശുചിത്വം നിലനിർത്തുക കൂടുകളും പരിസരങ്ങളും എപ്പോഴും വൃത്തിയാകുക അതിന് അതുങ്ങളുടെ തീറ്റയും മറ്റു സാധനങ്ങളുമൊക്കെ ഉം നല്ല വൃത്തിയായ സ്ഥലത്ത് സൂക്ഷിക്കുക വെള്ളവും തീറ്റിയുമെല്ലാം സമയത്ത് കൊടുക്കുക വാക്സിനേഷനുകൾ സമയത്ത് എടുക്കുക അങ്ങനെയുള്ള പരിപാടികളൊക്കെ ചെയ്യുക പിന്നെ നമ്മൾ ചെയ്യേണ്ടത് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ അ അതുങ്ങളെ ശ്രദ്ധിക്കുക അതുങ്ങൾക്ക് വല്ലതും ലക്ഷണങ്ങൾ കാണിക്കുന്നുണ്ടോ എന്തെങ്കിലും രോഗത്തിൻ്റെ ലക്ഷണങ്ങളുണ്ടെങ്കിൽ പെട്ടെന്ന് ആ കോഴികളെ മറ്റു കോഴികളിൽ നിന്ന് മാറ്റിയിടുക പിന്നെ നമ്മൾ കോഴിക്ക് നല്ല താപനില കൂടുതലുള്ള സ്ഥലങ്ങളിൽ താപനില കുറയ്ക്കാൻ വേണ്ടിയുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുക പിന്നെ ഓ നമ്മ ചെയ്യാൻ പറ്റുന്നത് കോഴികൾക്ക് പോഷക പോഷകകരമായ പോഷകകരമായ ആഹാരസാധനങ്ങൾ കൊടുക്കുക പ്രോട്ടീനും മറ്റ് വിറ്റാമിനുകളുവൊക്കെ അടങ്ങീരിക്കുന്ന ഭക്ഷണം കൊടുക്കാൻ ഉറപ്പാക്കുക ഇങ്ങനെ പരിപാലിക്കുന്നത് വഴി അതുങ്ങൾ രോഗമില്ലാത്ത രീതിയിൽ പോവുന്നതാണ്